ശാസ്ത്രത്തിലും സാങ്കേതികവിദ്യയിലും കരിയർ തുടരാൻ ആഗ്രഹിക്കുന്ന ഒരു സുഹൃത്തിന് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും വലിയൊരു മേഖല എന്ന് പറയുന്ന എൻജിനീയറിങ് മേഖലയാണ് കാരണം വേറൊന്നുമല്ല എൻജിനീയറിങ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു ഒരു എടുപ്പാണ് എൻജിനീയറിങ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ജോലി സാധ്യതയുള്ള ഒരു മേഖല തന്നെയാണ് എൻജിനീയറിങ് എൻജിനീയറിങ് തന്നെ ഒരുപാടുണ്ട് ഇലക്ട്രിക്കൽ സിവിൽ എൻജിനീയറിങ് മെക്കാനിക്കൽ എൻജിനീയറിങ് ഇതെല്ലാം ഓരോരോ പാർട്ട് ആണ് മീൻസ് പോളിടെക്നിക്ക് ഐ ടി ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ ചെറിയ ചെറിയ ചെറിയ പാർട്ടുകളിൽ കൂടെ ഉള്ള ഓരോ ചെറിയ എൻജിനീയറിങ് ഇതാണ് പേരുകളാണ് സിവിൽ എഞ്ചിനീയറിങും ഇലക്ട്രോണിക്സ് എൻജിനീയറിങ്ങിനും അങ്ങനെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ

നമ്മളൊന്നു മനസ്സിലാക്കേണ്ടത് ഈ എൻജിനീയറിങ് എന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ നമ്മൾ ഒരുപാട് ജോലി സാധ്യത കൂടുതലുള്ള ഒരു മേഖലയാണ് എൻജിനീയറിങ് പുറത്തായാലും ഇന്ത്യയ്ക്ക് പുറത്തായാലും നമ്മുടെ കേരളത്തിലായാലും എല്ലാം ഒരുപാട് അവസരങ്ങൾ നമ്മുടെ ഈ എൻജിനീയറിങ്ങ്കാർക്കുണ്ട് സാധാരണ ഇപ്പോഴത്തെ ഒരു ഇതെന്ന് വെച്ചാൽ എൻജിനീയറിങ്ങിന് അങ്ങനെ ജോലിയൊന്നുമില്ല ഭയങ്കര പാടാണ് പഠിക്കാൻ അങ്ങനെയൊക്കെയാണ് ഭയങ്കര ടഫ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എൻജിനീയറിങ് നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ എൻ്റെ സുഹൃത്തിന് പറഞ്ഞു കൊടുക്കുന്നതും നമ്മൾ ഏത് നമുക്ക് ഒരു ചാർട്ടിൽ നമുക്ക് ഇഷ്ടമുള്ള കൊറേ ഡിപ്പാർട്ട്മെന്റ് എഴുതിയിട്ട് ഏതിലാണോ നമുക്ക് നല്ലതായിട്ട് നിൽക്കാൻ പറ്റുന്നത് അതിൽ നമ്മൾ ഇപ്പം സിവിൽ എങ്കിൽ സിവിൽ മെക്ക് എങ്കിൽ മെക്ക് ഇലക്ട്രോണിക്സ് എങ്കിൽ ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ എങ്കിൽ ഇലക്ട്രിക്കൽ ഇതിൽ ഏതിലാണോ നമുക്ക് കൂടുതൽ നമ്മൾ സാറ്റിസ്ഫൈഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അതിൽ തന്നെ പിടിച്ച് നിന്ന് നമുക്ക് നല്ലൊരു കരിയർ ഉറപ്പാണ് പിന്നെ വേറെയൊരു കാര്യം നമ്മുടെ ജില്ലയിൽ നമ്മുടെ കേരളത്തിൽ ഒരുപാട് കോളേജുകളുണ്ട് നമ്മുടെ സ്വന്തം ജില്ലയിലുമുണ്ട് എസ് എൻ കോളേജ് ഹിന്ദുസ്താൻ കോളേജ് ഇക്ബാൽ കോളേജ് ഹീരാ കോളേജ് എല്ലാ കോളേജിലും അതിൻറ്റേതായിട്ടുള്ള ഓരോരോ ചെറിയ ചെറിയ പ്രവർത്തനങ്ങളും ഐറ്റംസ് ആയിട്ടൊന്നും എന്താണ് നമ്മൾ പറഞ്ഞ് ശരിയാക്കി മനസ്സിലാക്കി എല്ലാം ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എൻജിനീയറിങ്ങും നല്ല ടെക്നോളജി ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷനിൽ പറ്റും പിന്നെ ഈ സാങ്കേതികവിദ്യ എന്നുപറഞ്ഞാലും സാ എന്താണ് ശാസ്ത്രം ഇതെന്ന് പറഞ്ഞാലും ഇപ്പോൾ ശാസ്ത്ര എടുക്കുക തന്നെയാണെങ്കിൽ ഐ എസ് ആർ ഒ നമ്മുടെ തുമ്പ ഐ എസ് ആർ ഒ എന്താണ് അവിടെ ഓരോ ഇതിലും ഓരോ പാർട്ടിലും ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് പാവപ്പെട്ടവരായാലും എന്താണ് പണക്കാർ കുട്ടികളായാലും അവർക്ക് അങ്ങനെയൊന്നുമില്ല ഇപ്പം ഈ വന്ന കാലത്ത് ഫീസ് എല്ലാവരും ഫീസ് ആണ് എൻജിനീയറിങ് നോക്കുമ്പോൾ തന്നെ എന്താണ് ഫീസ് ആണ് ഇപ്പം എല്ലായിടത്തും ഒരു മുൻകൂട്ടം കൊടുക്കുന്നത് ഫീസ് ഇത്ര ഫീസ് ഇന്ന് ഉണ്ടെങ്കിൽ ആ കോളേജിൽ പഠിക്കാൻ പറ്റൂ അല്ലെങ്കിൽ ഇത്ര ഫീസ് ഉണ്ടെങ്കിലേ ആ ഒരു മേഖലയെടുത്ത് തിരഞ്ഞെടുത്ത് പഠിക്കാൻ പറ്റൂ അങ്ങനെയൊന്നുമില്ല നമ്മുടെ കയ്യിലുള്ളപ്പോൾ ഗവൺമെന്റ് ഒരു ഇത് പുറപ്പെടുവിച്ചിട്ടുണ്ട് വേറൊന്നുമല്ല ഇപ്പം നമ്മൾ ഓരോ കാസ്റ്റ് അനുസരിച്ച് അവർക്ക് പഠിക്കാനുള്ള ഓരോ ഇത് നമുക്ക് നമ്മുടെ ഈ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഐ എസ് ആർ ഒ യിലെ നമ്മൾ വിക്ഷേപണങ്ങളായലും ഇപ്പോൾ സ്കൂളുകളിൽനിന്ന് കുട്ടികളെ ഇപ്പം കുറച്ചു നാളുകൾക്ക് ഇപ്പം ടൂർ ആയിട്ട് സ്കൂളിൽനിന്ന് കുട്ടികളെ കൊണ്ടുവന്ന് ഐ എസ് ആർ ഒയിൽ കൊണ്ട് വന്ന് അവരുടെ ഓരോ കാര്യങ്ങൾ കാണിച്ചുകൊടുക്കുകയും വിക്ഷേപണം നടത്തുന്നതും പിന്നെ അവരുടെ പ്രവർത്തനങ്ങളും ടൈമിങും എല്ലാ കാര്യങ്ങളും കൊണ്ട് കാണിക്കുന്നുണ്ട് സ്കൂളുകൾ മാത്രമല്ല എൻജിനീയറിങ് കോളേജിൽനിന്ന് കാണിക്കുന്നുണ്ട് കോളേജിൽനിന്ന് ഇപ്പം ഓരോരോ എന്താണ് എക്സ്പോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഒരു പാർട്ട് ഐ എസ് ആർ ഒയ്ക്ക് വിട്ടു കൊടുത്തിരിക്കുകയാണ് കാരണം അതിനെ എന്താണെന്ന് ഈ വരുന്ന പുതിയ കുട്ടികൾക്കായാലും പുതിയ തലമുറകൾക്കായാലും പ്രായമുള്ള ഇപ്പം എല്ലാവരും ടെക്നോളജി ഫോൺ ഉപയോഗിക്കുന്നു ഫോണിൻ്റെ അനുസരിച്ച് മാറുന്നു എല്ലാം ചെയ്യുന്നു അപ്പോൾ അതിനനുസരിച്ച് മാറുന്നതുകൊണ്ട് നമ്മളും അതനുസരിച്ച് മാറണം എന്തായി അപ്പോൾ എന്താണ് വേണം നമ്മൾ എല്ലാ കാര്യങ്ങളും അപ്പം ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതിൻറ്റേതായിട്ടുള്ള അപ്പം ഒരു ഒരു സാധനം അപ്പോൾ ഒരു വസ്തു നമ്മൾ കാണുകയാണ് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ കൂടുതലും മനസ്സിലാക്കണം അതിപ്പോൾ നമ്മളുടെ ശാസ്ത്രത്തെ പറ്റിയാണെങ്കിൽ അതും വളരെ നല്ലൊരു കാര്യമാണ് എന്താണ് ഇപ്പോൾ ഐ എസ് ആർ ഒ ആ എന്താണ് എന്തിനാണ് ഈ ഐ എസ് ആർ ഒ നമുക്ക് കേൾക്കുമ്പോൾ ആദ്യം ഒന്നും മനസ്സിലാവില്ല പക്ഷേ അതിനെപ്പറ്റി നമ്മൾ നല്ല രീതിയിൽ അറിഞ്ഞ് മനസ്സിലാക്കി എല്ലാം ഇതായാൽ അടിപൊളിയാണ് സൂപ്പർ ആയിട്ട് നമുക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കാൻ പറ്റും പിന്നെ ഒരു കാര്യം ഈ കോളേജുകൾ അവിടുത്തെ നമ്മുടെ കോളേജുകളിലൊക്കെയാണെങ്കിൽ ഇപ്പം എന്താണ് പണ്ടൊക്കെയാണെങ്കിൽ കോളേജിൽ റാഗിങ്ങും അതും ഇതുകളൊക്കെയുണ്ട് പക്ഷേ ഇപ്പോഴത്തെ എൻജിനീയറിങ് കോളേജുകളായാലും ഇപ്പോഴത്തെ ഏത് കോളേജുകളായാലും അതിൻറ്റേതായിട്ടുള്ള ഒരു കുട്ടി അവിടെ പഠിക്കുന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഏത് രീതിയിലാണോ അതിനനുസരിച്ച് ആ കുട്ടിക്ക് എല്ലാം ആ കോളേജിൽ നിന്ന് തന്നെ കിട്ടും ഇപ്പം പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് അങ്ങനെ ഒന്നും എന്താണ് പാവം കുട്ടി വീട്ടിലെ കുട്ടികൾക്ക് പാവപ്പെട്ട രീതിയിലുള്ള ആ ഒരു ഇതാണ് കൊടുക്കുന്നത് പണക്കാരെങ്കിൽ പണക്കാരുടെ രീതിയിലുള്ള ഒരു ഇത് പക്ഷേ ശാസ്ത്രസാങ്കേതിക മേഖലയിൽ ഏറ്റവും തിരഞ്ഞെടുക്കാൻ പറ്റുന്ന കുറേ മേഖലകളുണ്ട് അതിലെല്ലാം നമുക്ക് നല്ല രീതിയിലുള്ള ഒരു നിലവാരം നമുക്ക് തന്നെ നമുക്ക് കൈവരിക്കാൻ പറ്റും എല്ലാ രീതിയിലും നമ്മുടെ ഈ വന്ന തലമുറകൾക്കായാലും ഇനിയും വരാൻ പോകുന്ന തലമുറകൾക്കാണെങ്കിലും അവരെല്ലാം മനസ്സിലാക്കേണ്ടത് എന്താണോ നമുക്ക് പറ്റുന്നത് നമ്മുടെ ശാസ്ത്രം നമ്മുടെ ലോകത്തിന് നമ്മുടെ ലോകത്തിനെയും നമ്മുടെ ഇതിനെയും വിളിച്ചറിയിച്ച് കാണിച്ചുകൊടുക്കാൻ പറ്റിയ ഒരു വലിയ ഒരു ഒരു സന്ദർഭം തന്നെയാണ് നമുക്ക് ഇനിയും വരാൻ പോകുന്ന തലമുറകൾക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ കൂടി ഒരു കാര്യമാണ് നമ്മുടെ ഈ ശാസ്ത്രത്തെപ്പറ്റിയും സാങ്കേതികേപ്പറ്റിയും ഉള്ള ഓരോരോ ചെറിയ ചെറിയ പോയിൻറ്റുകളായാലും വിവരങ്ങളായാലും നമുക്ക് അവരുടെ അടുത്ത് നമുക്ക് പറ്റുന്ന രീതിയിൽ എന്താണോ നമുക്ക് ഓരോ ശാസ്ത്രത്തെ പറ്റി അറിയാൻ കഴിയുന്നത് അത് പറയുക അത് ഏത് രീതിയിൽ എങ്ങനെ വേണമെങ്കിലും ഒരാൾക്ക് മനാ എ എന്തു പറഞ്ഞു അവർക്കു മനസ്സിലാവും എന്തൊക്കെ കാണിച്ചാൽ അവർക്ക് അതിനെ പറ്റി അറിയാൻ പറ്റും ഈ വന്ന കാലത്ത് ഫോണുകളിൽ എല്ലാ രീതിയിലും അവർക്ക് അറിയാൻ പറ്റും ഇപ്പോൾ എല്ലാ കൊച്ചുകുട്ടികളും എല്ലാം ഫോൺ ഉപയോഗിക്കുന്നതാണ് അവരുടെ ചെറിയ പ്രായം തൊട്ട് എന്താണ് ഇതിനെപ്പറ്റി ഒക്കെ ഒന്ന് കാണിച്ചു കൊടുത്താൽ അവർ ആ രീതിയിൽ വലുതാവുമ്പോൾ അവർക്ക് അവർ ഇന്ന ആളാവണം ഇന്ന വ്യക്തി ആവണം നമ്മുടെ എ പി ജെ അബ്ദുൽ കലാം ഒരു ചെറിയ ഒരു പ്രായത്തിൽ തന്നെ അദ്ദേഹത്തിന് തോന്നിയ ഒരു ആശയം കൊണ്ടാണ് അദ്ദേഹം വലുതായി ഐ എസ് ആർ ഒയുടെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യക്തി തന്നെ ആയത് ചെയർമാൻ തന്നെ ആയിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കഴിവും അദ്ദേഹത്തിൻ്റെ ഓരോ ഇതുംകൊണ്ടാണ് ഓരോ രീതി അങ്ങനെ അദ്ദേഹം മാത്രമല്ല നമ്മളെയും കൊണ്ടും പറ്റുന്ന രീതിയിൽ ഓരോ കഴിവുകൾ ചെയ്താൽ അതിനനുസരിച്ച് നമുക്ക് വളരാം ഇതാണ് ശാസ്ത്രത്തിൻ്റെ ഒരു എനിക്ക് മനസ്സിലായ ഒരു കാര്യം